ഈ അടുത്ത വർഷങ്ങളായിട്ട് ഇന്ത്യൻ സമ്പദ്സ് ശരിക്ക് സമ്പദ് വ്യവസ്ഥ നന്നായിട്ടാണ് വളർന്നത് കാരണം പ്രധാന വ്യവസായങ്ങള് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല തുണിയാണെന്ന് തോന്നുന്നു ഡ്രസ്സ് അതായത് വസ്ത്രങ്ങളുടെ ഒരു വില്പനയാണ് പ്രധാന വ്യവസായമായിട്ട് തോന്നിയത് കാരണം ഒരുപാട് കളക്ഷൻസ് ആണ് അധികം വന്നിട്ടുള്ളത് പിന്നെ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് ഡിജിറ്റൽ പേ അതൊക്കെ നന്നായിട്ട് സാമ്പത്തിക മേഖലയെ സഹായിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അറിയാം ഒരു ബാങ്കില് ഒരു പൈസ എടുക്കണമെങ്കില് നമ്മള് ബാങ്കില് പോയി ബുദ്ധിമുട്ടി വരി നിന്ന് കുറേ കഷ്ടപ്പാടുണ്ട് ഇപ്പോള് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് പണം കൊടുക്കണേല് അയാളുടെ വീട്ടിലൊന്നും പോകണ്ട നമുക്ക് ഇപ്പോള് ഗൂഗിൾ പേ വഴി നെറ്റ് ബാങ്കിങ്ങ് വഴി ഒരു സ്ഥാപനത്തില് പണം അടയ്ക്കണം അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫീ അടയ്ക്കണം കോളേജിൻ്റെ ഫീ അടക്കണം ഒക്കെ നമുക്ക് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതൊക്കെ ഒരുപാട് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ഒരുപാട് വളർന്നതിന് ഉദാഹരണമാണ് കാരണം നമുക്ക് അതങ്ങനെ കിട്ടിയതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ല ഒരു അസുഖം വന്ന വ്യക്തിക്ക് പോലും ഒരു വരി നിന്ന് മരുന്ന് വേടിക്കാനോ അതുപോലെതന്നെ എന്ത് എന്ത് മരുന്ന് തന്നെയല്ല എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് ഗൂഗിൾ പേ വഴി പൈസ കൊടുത്ത് നമ്മടെ വീട്ടിലെത്തിക്കാൻ പറ്റുന്ന ഈ സംവിധാനം ഒരുപാട് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം